സർക്കാരിൻ്റെ പദ്ധതികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് പറയാൻ ഉള്ളത് നമ്മള് ഗവൺമെൻ്റ് ഹോസ്പിറ്റൽസാണ് അതായത് ഇപ്പോഴെല്ലാവരും പൈസക്കാർ ആയിരിക്കില്ലല്ലോ പൊതുവെ പാവപ്പെട്ടവർക്കും അതായത് പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും പറ്റിയിട്ടാ എല്ലാവരും പാ പൈസക്കാരൊക്കെ പൊതുവെ പ്രൈവറ്റിൽ പോവും പാവപ്പെട്ടവർക്ക് എന്തേലും പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഗവൺമെൻ്റ് ഹോസ്പിറ്റലുകൾ അങ്ങനെയൊക്കെയല്ലെയുള്ളൂ ഉളളൂ അപ്പോൾ മെയിനായിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ നമുക്ക് തരുന്ന സർവീസസെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വളരെ ഉപകാരപ്രദമാവും അതായത് നമ്മളെ പോലെയുള്ള പാവപ്പെട്ടവർക്ക് വളരെ ഉപകാരപ്രദമാവും പിന്നെ അത് പോലെ അതായത് ഈ അമ്മയും കുഞ്ഞും അതായത് ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അമ്മയ്ക്ക് അതായത് സർക്കാർ ഹോസ്പിറ്റൽ നിന്നാണ് ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് അയ്യായിരം രൂപ കിട്ടും പിന്നെ അതുപോലെത്തന്നെ നമുക്ക് അംഗൻവാടിയിൽ ഇപ്പം മോദീൻ്റെ ഒരു സർക്കാരിൻ്റെ ഒരു ഇതുണ്ട് നമുക്ക് അംഗൻവാടിയിൽ അയ്യായിരം രൂപ അതായത് ആദ്യത്തെ കുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അംഗൻവാടീന്ന് അയ്യായിരം രൂപ കിട്ടും പിന്നെ ഗവൺമെൻ്റിലാണെങ്കിൽ അയ്യായിരം രൂപയും കിട്ടും പിന്നെ നമുക്ക് വേറൊരു പൈസ എഴുനൂറ് രൂപ അങ്ങനെ കിട്ടും ആ ഒരു സ്കീം ഉണ്ട് പിന്നെ അവിടന്നുതന്നെ ഇപ്പോൾ ഗവൺമെൻ്റ് ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് ഇപ്പോൾ വണ്ടി ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ അവിടന്നുതന്നെ ഒരു കാർ പ്രൊവൈഡ് ഇപ്പോൾ കാറിൽ നമ്മളെ വീട് വരെ കൊണ്ട് വിട്ട് തരും അങ്ങനത്തെ സ്കീമുകളൊക്കെ ഉണ്ട് സർക്കാരിൻ്റെ